ഞാനും എൻ്റെ മകനും കൂടിയാണ് ബൈക്ക് യാത്ര ചെയ്യാറ് ഞങ്ങൾ ഒരു നീണ്ട യാത്ര പോയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ എറണാകുളം വരെ പോയതാണ് ഞങ്ങളുടെ നീണ്ട യാത്ര കാരണം അവിടെ ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം മോനും ഞാനും കൂടെ ബൈക്കിൽ പോകാനായിട്ടെടുത്തിരിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങനെ കയ്യിൽ കൂടുതലായിട്ട് സാധനങ്ങളൊന്നും കരുതാറില്ല പിന്നെ ഇടക്ക് ഇച്ചിരി കുടിവെള്ളം അങ്ങനെയുള്ളൂ പിന്നെ ചെറിയ സ്നാക്സും പിന്നെ കൂടുതലായിട്ടും ഞങ്ങൾ പല സ്ഥലങ്ങൾ കണ്ട് പോകാനും പലയിടത്തും നിർത്തി ഫോട്ടോഷൂട്ടോക്കെ ചെയ്യാനും അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കാരണം ബൈക്ക് യാത്ര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ത്രില്ലിങ്ങായിട്ടുള്ളൊരു കാര്യമാണ് വളരെ അധികം സന്തോഷം തരുന്നൊരു കാര്യമാണ് കാരണം വിശാലമായ പ്രകൃതിയിലൂടെ ബൈക്കിലൂടുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ മറക്കാൻ ആവാത്ത സംഭവമാണ് അങ്ങനെ ഞാനും മോനും കൂടി പല യാത്രകൾ പല രീതിയിൽ അങ്ങനെ പോയിട്ടുണ്ട് നീണ്ട യാത്ര എന്നു പറഞ്ഞാൽ നമുക്ക് ഈ ഇത് ഇതിൽ കൂടുതലായിട്ട് നമുക്ക് ഇങ്ങനെ യാത്രകൾ ചെയ്യാൻ എറണാകുളം തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ പോയി ഞങ്ങൾ ഏതാണ്ട് വെളുപ്പിനെ എങ്ങാണ്ട് വീട്ടീന്നിറങ്ങി അതിനു ശേഷം അവിടെ നിന്ന് പല സ്ഥലങ്ങൾ കണ്ടു കണ്ടിട്ട് ഞങ്ങൾ ഏങ്ങാണ്ട് ഒരേകദേശം രാത്രി പതിനൊന്നുമണിയോടുകൂടിയാണ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയത് അപ്പോൾ ആ യാത്ര ജീവിതത്തിൽ ഒരു വളരെ അധികം സന്തോഷം നിറഞ്ഞൊരു യാത്രയാണ് ഞങ്ങൾടെയിൽ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ വഴിയരികിൽ കണ്ട കടകളിൽ നിന്നും അതു ഇതും വാങ്ങിച്ചു പിന്നെ ഞങ്ങളുടെ കൈയിലുള്ള സ്നാക്സും വെള്ളവും ഒക്കെ കുടിച്ച് ഞങ്ങൾ ആ യാത്ര അതിഗംഭീരമായിട്ട് ചെയ്ത് തീർത്തു